മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കില് നമ്മുടെ നാട്ടില് പ്രണയ വിവാഹങ്ങൾ വളരെ ചുരുക്കമാണ് കൂടുതലായിട്ടും അറേഞ്ച്ട് മാര്യേജസ്സാണ് നടക്കുന്നത് വരൻ്റെ വധുവിൻ്റെ വീട്ടുകാര് കണ്ടുപിടിച്ച് നടത്തുന്നതാണ് അറേൻജിട് മാര്യേജ് കൂടുതലും ബ്രോക്കർ വഴിയും മാട്രിമോണി വഴിയൊക്കെ ആണ് വധുവിനെ തിരയുന്നതും വരനെ തിരയുന്നതൊക്കെ ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കില് പെണ്ണിൻറ്റെയോ ചെറുക്കന്റെയോ ഫോട്ടോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കില് പിന്നെ വീട്ടുകാരുമായിട്ട് സംസാരിക്കുന്നതായിരിക്കും അങ്ങനെ അറേൻഞ്ചെയ്യുന്ന ഒരു ചടങ്ങാണ് പെണ്ണ് കാണൽ ചടങ്ങ് പെണ്ണുകാണൽ ചടങ്ങെന്ന് പറയുമ്പോഴത്തേക്കും വരൻ്റെ വീട്ടിൽ നിന്ന് വധുവിൻ്റെ വീട്ടിലേക്ക് വധുവിനെ കാണാനായിട്ട് എല്ലാവരും പോകുന്നൊരു ചടങ്ങാണ് അന്നായിരിക്കും വധുവിനെ ആദ്യമായിട്ട് കാണുന്നതും അപ്പോഴായിരിക്കും എല്ലാം കല്യാണത്തിനെപ്പറ്റി സംസാരിക്കുന്നതും എല്ലാം വരൻ്റെ വീട്ടില് നിന്ന് വരനും അച്ഛനും അമ്മയും സഹോദരങ്ങളും ആയിട്ട് വധുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നതായിരിക്കും വധുവിൻ്റെ വീട്ടില് ചെല്ലുമ്പോഴത്തേക്കും വധു ഒരുങ്ങി ചായയും പലഹാരങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് വരന് കൊടുക്കുകയും സൽക്കരിക്കുകയും ചെയ്യും എന്നിട്ട് അവര് വീട്ടുകാര് തമ്മിൽ സംസാരിക്കും അതിനുശേഷം വധുവിൻ്റെ അമ്മാവനും അച്ഛനും അമ്മയും എല്ലാവരുമായിട്ട് സംസാരിക്കുകയും വധുവിനും വരനും സ്വകാര്യമായിട്ട് സംസാരിക്കാനുള്ള അവസരം കൊടുക്കുകയും അത് പണ്ട് കാലങ്ങളിലൊന്നും അങ്ങനെ ഇല്ലായിരുന്നു സ്ത്രീകളുടെ വാക്കിന് അധികം വാല്യൂ കൊടുക്കത്തില്ലായിരുന്നു അമ്മാവനും അച്ഛനും സഹോദരനും കൂടെയൊക്കെയാണ് സംസാരിക്കുന്നത് പക്ഷെ ഇപ്പോള് വന്നിട്ട് വധുവിൻ്റെ താൽപ്പര്യം ചോദിക്കും വരനും വധുവും മാറിനിന്ന് സംസാരിക്കും അവർക്ക് സ്വകാര്യമായിട്ട് സംസാരിക്കാനുള്ള കാര്യങ്ങള് അവരുടെ താല്പര്യങ്ങള് ഇഷ്ടങ്ങള് അനിഷ്ടങ്ങള് എല്ലാം അവര് സംസാരിക്കുന്നതായിരിക്കും എന്നിട്ട് അവര് വീട്ടുകാരെ കാര്യം അറിയിക്കും വരൻ വധുവിനെ ഇഷ്ടപ്പട്ടോ എന്ന് വരൻ്റെ വീട്ടുകാരോടും തിരിച്ചും വധു വധുവിൻ്റെ വീട്ടുകാര് വരനെപ്പറ്റിയും സംസാരിക്കുന്നതായിരിക്കും എന്നിട്ട് അവര് കുടുംബക്കാര് ഇരുന്ന് സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തുന്നതായിരിക്കും പിന്നെ നിശ്ചയം കല്യാണം അങ്ങനെ ആണ് നമ്മുടെ നാട്ടില് കല്യാണം നടത്തുന്നത്